ഇപ്പം ബൈക്ക് കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ നമ്മള് മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുമ്പോൾ ഹെൽമെറ്റ് കാര്യങ്ങള് നോക്കാറുണ്ട് ഇപ്പം രണ്ട് പേർ യാത്ര ചെയ്യണെങ്കിൽ രണ്ടുപേർക്കും ഹെൽമെറ്റ് കാര്യങ്ങളും നോക്കാറുണ്ട് എപ്പഴും അത് ഒര് ഇംപോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനത്തിന് അത്രയും ഇംപോർട്ടൻസ് വരുന്ന ഒരു കാര്യാണ് അതുപോല തന്നെ ലൈസൻസ് പിന്നെ വണ്ടിയുടെ പേപ്പർ കാര്യങ്ങൾ പൊലൂഷൻ ഇൻഷൂറൻസ് ഇതെല്ലാം നോക്കാറുണ്ട് അതുപോല തന്നെ നമളിപ്പം ഒരു യാത്ര ചെയ്യു ആണെന്നുണ്ടെങ്കില് മാക്സിമം നമ്മുടെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി അതുപോല തന്നെ വണ്ടിയുടെ റണ്ണിംഗ് കണ്ടീഷനും കാര്യങ്ങളു എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മള് വണ്ടി കാര്യങ്ങളൊക്കെ കൊണ്ടു പോകാറുമുള്ളതും ബ്രേക്ക് ഫ്യുവല് അതുപോല തന്നെ വണ്ടീൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങള് എല്ലാം ചെക്ക് ചെയ്യാറുണ്ട് അതുപോലെ ഇപ്പം നമ്മള് യാത്ര ചെയ്യുന്ന സമയങ്ങളില് ഏറ്റവും കൂടുതല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതല് വേണ്ടൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈസൻസ് അതുപോലെ വണ്ടീൻ്റെ ബുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പഴും അവർക്ക് വേണ്ടി നമ്മള് പ്രൊവൈഡ് ചെയ്യണ്ടതാണ് ഇപ്പം പരിവാഹൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇണ്ട് എന്നികിൽ പോലും നമ്മുടെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കറക്ട് ടൈമില് പുതുക്കി മെയിൻറെയിൻ ചെയ്ത് കൊണ്ടോണ്ടതാണ് പൊളുഷൻസ് ഇൻഷുറൻസ് കാര്യങ്ങളും ഒക്കെ നമ്മള് മെയിൻറെയിൻ ചെയ്ത് കൊണ്ട് നടക്കണ്ട കാര്യങ്ങളാണ് അതുപോല തന്നെ ഇപ്പം നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഹെൽമെറ്റ് കാര്യങ്ങള് വരുന്നത് അതും രണ്ടു പേര് യാത്ര ചെയ്യാൻ പാടുള്ളൂ രണ്ടു പേർക്കാണ് മാക്സിമം യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിൻ്റെ ഉള്ളില് രണ്ടു പേർക്കും ഇപ്പം ബൈക്ക് കാര്യങ്ങളില് രണ്ടു പേർക്കും ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അത്രത്തോളം ഇംപോർട്ടൻറായ കാര്യങ്ങളാണ് ഹെൽമെറ്റ് തന്നെ നമക്ക് മക്സിമം തലക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളും തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോല തന്നെ ഇപ്പം ഫ്യുവല് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാക്സിമം നമ്മക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ച് എണ്ണ കാര്യങ്ങളൊക്കെ അടിച്ചും എവിടേക്കാണ് കിട്ടുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എണ്ണയും കാര്യങ്ങളൊക്കെ മാക്സിമം അടിച്ചു വച്ചും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്